പിന്നെ ഞങ്ങളുടെ സ്ഥലം എന്ന് പറയണത് തൃശ്ശൂരാണ് തൃശ്ശൂർ തന്നെ കണ്ടമാനം വിനോദസഞ്ചാരികൾക്ക് പോകാൻ പറ്റിയ സ്ഥലങ്ങളുണ്ട് ആതിരപ്പള്ളി വാഴച്ചാൽ സ്നേഹതീരം ബീച്ച് തൃശ്ശൂർ ശിവ തൃശ്ശൂർ അമ്പലം ടെമ്പിള് പിന്നെ വാഴച്ചാൽ പിന്നെ മലക്കപ്പാറ പിന്നെ കണ്ടമാനം നല്ലൊരു പ്ലെയിസ് തന്നെയുണ്ട് തൃശ്ശൂരിൽ വിസിറ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങൾ അപ്പോൾ ഇവിടെയെന്നൊക്കെ പറയണത് വളരെ ചീപ്പ് ആന്ഡ് ആണ് ചീപ്പാണ് റൂമ് റെന്റൊക്കെ വരണത് ഒരു ഏകദേശം ഈ പറഞ്ഞ സ്ഥലങ്ങളിലേക്ക് പോകാൻ വേണങ്കിൽ നിങ്ങൾ ഒരു സ്ഥലത്ത് വേണങ്കിൽ ഒരു ടു റ്റു ത്രി പെര് ഇയറ് ഒരു സ്ഥലത്ത് സ്പെന്റ് ചെയ്താലും ഏകദേശം വേണങ്കിൽ ഒന്നര ദിവസം കൊണ്ട് നമുക്ക് ഈ സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് കണ്ടിട്ട് വരാം അതുകൊണ്ട് ഞങ്ങളുടെ അവിടെ വന്നാൽ ഓരോ സ്ഥലങ്ങളും എടുത്ത് എടുത്ത് എടുത്താണ് ഉള്ളത് ഒരു വേണങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് വേണങ്കിൽ ഒരു രണ്ട് മൂന്ന് രണ്ട് ഹവർ ഒരു ഹവറ് ഒക്കെ ഉണ്ടാവുള്ളൂ മറ്റേ സ്ഥലത്തേക്ക് യാത്ര അല്ലെങ്കിൽ അതിലും കുറവായിരിക്കും അരമണിക്കൂറൊക്കെയാണ് ഉണ്ടാവുക അപ്പോൾ ഒരോ സ്ഥലത്ത് നിന്നും വളരെ ചീപ്പായത് കൊണ്ട് ഞങ്ങളുടെ അവിടെ അത്ര വലിയ ചിലവ് വരും പിന്നെ ഫുഡിന്റെ കേസ് നോക്കുകാന്നു വച്ച് കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി ഫുഡുവാ എന്ന് വച്ചാൽ നല്ല ചീപ്പ് റേറ്റുവാണിവിടെ ഉള്ളത് ഏറ്റവും കൂടുതൽ നല്ല ഫുഡ് വിളമ്പുന്ന ഒരു സ്ഥലം കൂടിയാണ് തൃശ്ശൂര് സ്ഥലം അപ്പോൾ നല്ല ടേസ്റ്റിയായ ഫുഡ്സും സീ ഫുഡ്സും നോണ് ഫുഡ്സും നോണ് വെജിറ്റേറിയനും വെജിറ്റേറിയനും അപ്പം ആയിട്ടുള്ള ഫുഡുകളെല്ലാം തന്നെയുണ്ടാവും ഒരു ഏകദേശം ഒരു ഒരു അയ്യായിരം രൂപയുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ഒരു സുഖം സുന്ദരമായിട്ട് ഈ കെ തൃശ്ശൂര് ജില്ലേൽ തന്നെയുള്ള നല്ല പ്ലേയിസ് വാഴ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തും ഒക്കെ എല്ലാം ആസ്വദിച്ച് നിങ്ങൾക്ക് വരാന് പറ്റും ഒരു ഒന്നര ദിവസം കൊണ്ട് ഒന്നര ദിവസം വേണ്ട ശരിക്കും പക്ഷെ എന്നാലും നല്ല നന്നായി എല്ലാ സ്ഥലം എക്സ്പ്ലോറ് ചെയ്യാന്ന് വെച്ചെങ്കിൽ ഒരു ഒന്നര ദിവസം മാക്സിമം മതി നിങ്ങൾക്ക് അടിപൊളിയായിട്ട് തിരിച്ചു വരണങ്കിൽ ഒരു ഏകദേശം ഒരയ്യായിരം ആറായിരം രൂപയായുണ്ടെങ്കിൽ അതിനും ഏറ്റവും മാക്സിമാ ഞാന് പറയണത് അത് അതിന്റെ ഒപ്പത്തിൽ വരില്ല എന്തായാലും റൂം റെന്റൊക്കെ ഏകദേശം ഒരായിരം രൂപയൊക്കെയാണ് പെര് ഹെഡിന് അതിന് താഴെയാണ് നല്ലൊരു റൂമ് ഒരു ത്രീ സ്റ്റാര് ഫോര് സ്റ്റാറൊക്കെ ഒരായിരം ആയിരത്തി ഇരുനൂറ് രൂപയാണ് ഇവിടെ വരാന് ചാന്സുള്ളൂ അതാണ് തൃശ്ശൂരിന്റെ ഒരു പ്രത്യേകത അപ്പോൾ ഏറ്റവും കൊണ്ട് വളരെ ചിലവു കുറച്ച് വരാന് പറ്റിയ ഒരു പ്ലെയിസാണ് ഞങ്ങളുടെ തൃശ്ശൂര് ജില്ലയിലെ ഈ സ്ഥലങ്ങളൊക്കെ